ഹലോ ആ ബിളിച്ചിട്ടുണ്ടായിന പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ഞാൻ പീടികയിലുണ്ട് പറഞ്ഞോളൂ ഒരു മിൻറ്റെ ആ അവിടെ കുറച്ച് മല്ലിച്ചപ്പ് ലോടിയ മഞ്ഞെണ്ണ ആ ഒരു മിൻറ്റ് ആ പറഞ്ഞോളൂ ആ ആ പറഞ്ഞോളൂ ഇരുപത്തി അഞ്ച് കിലോ തക്കാളി തക്കാളിക്ക് ഇപ്പം വില കൂടീന് എമ്പ റുപ്പ ആയിന് ആയി നോക്കായാ നാൽപത് കിലോ ഉള്ളി ഉള്ളി നാൽപത് മതിയോ നിൻ്റെ ചെക്കന് പിന്നെ ഞാൻ രണ്ട് ചാക്ക് അരി കൊണ്ടോയിന് അതിന് മേലെ ഇരിക്കട്ട് ഉള്ളി ബാക്കിയുണ്ടങ്ങ് നോക്കാം ആ റിട്ടേൺ എടുക്കും റിട്ടേൺ എടുക്കും

ആ എടുക്കാം എടുക്കാം എടുക്കാം മസാല ചിക്കൻ മസാല എല്ലാം എടുക്കാം ആ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ

നിൻ്റെ മുഞ്ഞിഞ്ഞാത്ത ഒരു പൈസ ബാക്കിയുണ്ടല്ലോടാ ഒരു ആയിരത്തി എട്ട്ന്നൂറെന്തോ അത് എന്താണ് പൈസ ക്ലിയറാക്കണം അപ്പ അപ്പം പെൻഡിങ് വെക്കണെ അല്ല ആ പൈസ ക്ലിയറാണ് ആ ഓക്കെ ഓക്കെ അയിൻ്റെക്കന്നെ ക്ലിയറാക്കിയത് ആ ഓക്കെ ആ ബേറെന്തുവാ വേണ്ടത് ആ വണ്ടി നീയാക്കുമോ ആ നീയാ അപ്പോൾ ആരെ വണ്ടി ആക്കുന്നത് ഈ ഇതല്ലിപ്പൊ റിക്ഷാ ടപ്പാണോ മറ്റേ ബൈക്കിലൊണ്ടോന്നത് ആ അപ്പാമ റിക്ഷ വച്ചാൽ ആ ഓക്കെ ഓക്കെ ആ പിന്നേ ആ ഇതൊക്കെ കഴിയുന്ന ബിക്കോ നീയാ പൈസ ഒന്ന് കൊടുത്തിട്ട് ക്ലിയറാക്കിയാതി ആവാ പൈസ ഏകദേശം ഒരു മിനിറ്റെ ഹാഫ് കൊടുത്തോ ഒരു മിനിറ്റ് ഒരു മിനിറ്റെ ആ ഏകദേശം ആറായിരത്തി മുന്നൂറ്ലാന്ന് ആ ആ ഞാൻ കുറക്കാം നീ ബാ പയ്യെ ആയ ഓക്കെ ഓക്കെ ഓക്കെ